പോളിയോയിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കാനായിട്ട് ഞങ്ങളുടെ ഗ്രാമത്തിലെ ആൾക്കാർ ചെയ്യുന്നത് വാക്സിൻ എടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഒക്കെ കുഞ്ഞ് കുട്ടികളായിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ മാതാപിതാക്കന്മാർ സ്കൂളുകളിൽ ഈ പോളിയോക്ക് എതിരെ വാക്സിൻ ഇങ്ങനെ കുത്തിവെപ്പൊക്കെ നടത്തുമായിരുന്നു അപ്പം കുട്ടികളെ പേടിക്കുകയും കരയുക ഒക്കെ ചെയ്യും എങ്കിലും വീട്ടിൽ നിന്നും മതാപിതാക്കന്മാർ ഒക്കെ ബലമായിട്ട് എന്ന് പറഞ്ഞത് പോലെ അധ്യാപകരുടെ ഒക്കെ നിർബന്ധം കൊണ്ട് ആ വാക്സിന് എടുത്തിട്ടുണ്ട് അപ്പം വളരെ അപൂർവമായിട്ട് ഒക്കെ ചില കൂട്ടുകാർ ഒക്കെ എടുക്കാതെ വരികയും അവർക്ക് എൻ്റെ തന്നെ അറിയാം എൻ്റെ തൊട്ടടുത്തുള്ള ഒരു കൂട്ടുകാരൻ്റെ കാല് മെലിഞ്ഞ് പോയിട്ടുണ്ട് അവന് നടക്കാൻ പറ്റുന്നുണ്ട് ചട്ടിച്ചട്ടിയാണ് എങ്കിലും പോളിയോ വന്നത് കൊണ്ടാണ് അത് എന്തുകൊണ്ടാണ് അന്ന് എടുക്കാതെ പോയതെന്ന് ചോദിച്ചപ്പം അവന് ആ ദിവസങ്ങളിൽ പനിയായിരുന്നു അതുകൊണ്ടൊക്കെ എടുക്കാൻ പറ്റിയില്ല എന്നാണ് അവൻ്റെ മാതാപിതാക്കന്മാർ പറഞ്ഞത് പേടികൊണ്ടോ ഒക്കെ ആയിരിക്കും സംഭവിച്ചത് ആയിരിക്കാം അങ്ങനെ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ ഉള്ളതുകൊണ്ട് പിന്നീട് ആ നാടുകളിൽ ഒക്കെ ഉണ്ടാകുന്ന കുട്ടികൾക്ക് ആർക്കെങ്കിലും ഒരിക്കൽ ഒരാൾക്ക് പോലും പോളിയോയ്ക്ക് എതിരെ ആ വാക്സിൻ എടുക്കാതെ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പം ഈ നാട്ടുകളിൽ എങ്ങും പോളിയോ രോഗമുള്ള ഒരാളെ പോലും ഇവിടെ കാണുവാനില്ല വളരെ നേരത്തെ തന്നെ ആൾക്കാർ കുട്ടികളെ പോളിയോക്കെതിരുള്ള വാക്സിൻ എടുക്കുകയും അത് ഫലപ്രദമായി നടത്തികൊണ്ട് പോവുക ഒക്കെ ചെയ്യുന്നുണ്ട് ആ കാര്യത്തിൽ നമ്മുടെ സർക്കാരിനെയും നമ്മുടെ ആരോഗ്യ മേഖലയും അഭിനന്ദനം അർഹിക്കുന്നതാണ് അവർ ചിട്ടയായിട്ടുള്ള പ്രവർത്തനങ്ങൾ വഴിയും ആദ്യ കാലങ്ങളിൽ ഒക്കെ കൂടുതൽ കുട്ടികൾ ഉണ്ടായിരുന്നുള്ള സ്കൂളുകളിൽ തന്നെ വന്ന് എടുക്കുകയും പിന്നീട് സ്കൂളിലെ അങ്ങനെ ആ കു ആ മാതാപിതാക്കന്മാർക്ക് ഒക്കെ ബോധവൽക്കരണം നടത്തി കഴിഞ്ഞതിന് ശേഷം ആശുപത്രികളിലേക്ക് ആ വാക്സിൻ മാറ്റുകയും കുട്ടികളുണ്ടായി കഴിയുമ്പോൾ തന്നെ ആ തവണയ്ക്ക് തന്നെ അവർക്ക് കറക്റ്റായിട്ട് സമയത്ത് തന്നെ മരുന്ന് കൊടുക്കുകയും അത് ഒരു ദിവസം പോലും താമസിക്കാതെ എന്നാണോ ഡോക്ടർ കുറിച്ചിരിക്കുന്നത് അതേ ദിവസം തന്നെ എടുക്കാനും ഒക്കെയാണ് ആദ്യ കാലങ്ങളിൽ ഒക്കെ പൈസ കൊടുത്തൊക്കെ ചെയ്യേണ്ട സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു പിന്നീട് അത് പൈസാക്കെ ഫ്രീ ആയി സർക്കാർ ആശുപത്രികളിൽ ഒക്കെ ചെയ്യുന്നുണ്ട് ഇന്ന് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഒക്കെ വളരെ വ്യാപകമായിട്ട് പ്രദേശം ഗ്രാമങ്ങളിലൂടെ ഒക്കെ വന്നത് കൊണ്ട് എല്ലാവർക്കും ഇന്ന് ഇതിനെ പോളിയോക്ക് എതിരെയുള്ള വാക്സിൻ ലഭ്യമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് തന്നെ ഈ രോഗം മാറിപ്പോയിട്ടുണ്ട് അതിനുള്ള അഭിനന്ദനം സർക്കാരിനേം ഇപ്പം ഭാരതത്തെയും കേരളത്തെയൊക്കെ ഭരിച്ചുകൊണ്ടിരുന്ന സർക്കാറുകൾക്ക് നൽകുവാൻ സന്നദ്ധമാണ് അതിന് വേണ്ടി എനിക്ക് തോന്നുന്നു രോഗാരോഗ്യ സംഘടന ഒക്കെ നല്ലവണ്ണം പരിശ്രമിച്ചിട്ടുണ്ട് അത് വളരെ സ്ലാഗനീയമായിട്ടുള്ള കാര്യമാണ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഈ രോഗത്തിന് ഉള്ള ബുദ്ധിമുട്ട് കാണുകേം അറിയുകേം ആ ഒരു വീട്ടിൽ ഒരാൾക്ക് ഉണ്ടായതിനാൽ ആ കുടുംബത്തിൽ ഉള്ള ആൾക്കാർ ആ രോഗിക്ക് മാത്രമല്ല ആ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് ഇന്ന് ലോകത്തിന് അറിയാൻ പറ്റും നല്ല ആരോഗ്യമുള്ള ഒരാൾക്ക് ജീവിച്ച് പോകാൻ ബുദ്ധിമുട്ടുള്ള കാലത്ത് ഒരു തളർവാദം അല്ലെങ്കിൽ പോളിയോ ബാധിച്ച ഒരു ആളെക്കൂടെ സംരക്ഷിക്കാന്ന് പറയുന്നത് വലിയ ബാധ്യത ആൾക്കും ബുദ്ധിമുട്ടാണ് മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് രോഗത്തിൻ്റെ വിഷമതകൾ അറിയാവുന്നത് കൊണ്ട് തന്നെ എല്ലാ ആൾക്കാരും തന്നെ പോളിയോ മരുന്ന് ഉപയോഗിക്കാറുണ്ട് അതിന് വേണ്ടീട്ട് പരിശ്രമിക്കുന്ന എല്ലാ ആരോഗ്യ പ്രവർത്തകർക്കും ഒരു ബിഗ് സലൂട്ട് തന്നെ ഞാൻ നൽകുകയാണ് അത് വളരെ അഭിനന്താർഹമാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാരും ദീർഘ വിക്ഷണമുള്ള ഭരണാധിപന്മാരെ ഒക്കെ അഭിനന്ദിക്കുന്നു അവരുടെ വിശാലമായ പ്രവർത്തന ഫലമായി ഉദ്യോഗസ്ഥന്മാരുടെ ആത്മാർത്ഥമായ പ്രവർത്തനം വഴിയായി നമ്മുടെ രാജ്യത്തിന് തന്നെ ഇത് മാറിപ്പോയിട്ടുണ്ട് നമ്മുടെ നമ്മുടെ ഗ്രാമത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ദേശത്ത് നിന്ന് രാജ്യത്ത് നിന്ന് മൊത്തമൊന്ന് പറയാൻ പറ്റുന്നില്ല ചിലപ്പം വികസനം ഒക്കെ എത്തിച്ചേരാത്ത വിദ്യാഭ്യാസം ഒക്കെ ഇല്ലാത്ത ചില സ്ഥലങ്ങളിൽ ഒക്കെ ഇതിപ്പോഴും കണ്ടേക്കാം എങ്കിലും നമ്മുടെ അറിവിൽ തന്നെ ഇല്ലാത്തതു പോലെയാണ് അത് ഈ ഉദ്യ സാ ആരോഗ്യ മേഘലയിലെ ആൾക്കാരുടെ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് അതുകൊണ്ട് തന്നെ പോളിയോയിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കാൻ നിങ്ങളുടെ ഗ്രാമത്തിലെ ആളുകൾ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സർക്കാരും ഡോക്ടർമാരും ആരോഗ്യ ആരോഗ്യ പ്രവർത്തകരൊക്കെ തരുന്ന നിർദ്ദേശങ്ങൾ അതേപടി അനുസരിക്കുകേം നമ്മൾ സ്വന്തം മക്കൾക്കും അതുപോലെ തന്നെ നമ്മുടെ സ്വന്തത്തിലുള്ള കുട്ടികളെ ഒക്കെ ഈ പ്രതിരോധ ചികിത്സാ രീതിയിലേക്ക് കൊണ്ട് വരുകയും അവർക്ക് പോളിയോടെ തുള്ളി മരുന്നുകൾ ഒക്കെ കറക്റ്റ് സമയത്ത് കൊടുക്കുകേം ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ സ്കൂളുകൾ ഒക്കെ ആയിരുന്ന അതിന് ശേഷം അംഗനവാടികളിലായി കുഞ്ഞു കുട്ടികളെ അവിടെ കൊണ്ടുവന്ന് ചെല്ലുന്ന രീതിയായി ഇത്ര വയസ്സിന് താഴെയുള്ളതായി ഇപ്പം അങ്ങനെ വളരെ കുറഞ്ഞ് ഇപ്പം സ്കൂളിലൊന്നും കൊടുക്കണ്ട കാരണം എല്ലാ കുട്ടികൾക്കും തന്നെ ഇത് ലഭിച്ചു വളരെ ശാസ്ത്രീയമായി ചിട്ടയായ പ്രവർത്തനം വഴി ഈ രാജ്യത്ത് നിന്നും ഈ പോളിയോ നിർമാർജനം ചെയ്തു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിന് എല്ലാ ആരോഗ്യപ്രവർത്തവർക്കും ഭരണാധിപന്മാർക്കും നല്ല നമസ്കാരം നൽകുന്നു